ആദ്യമായി നൃത്തത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് എൻ്റെ കുഞ്ഞ് നാളിലെ മറ്റുള്ള കുട്ടികൾ കളിക്കുമ്പോൾ ഞാൻ വീട്ടിൽ നിന്നും കളിച്ച് കളിച്ച് അമ്മ അതിനെ കണ്ട് കൊണ്ട് അമ്മ അത് പള്ളിയിലെ പ്രോഗ്രാമിലേക്ക് കയറ്റി വിടുമായിരുന്നു അങ്ങനെ ആ പള്ളിലെ പ്രോഗ്രാമിലെല്ലാം ഞാൻ കളിച്ചു ഓരോ ഓരോ പ്രോഗ്രാമിലും ഓരോ വർഷത്തെ വാർഷിക പ്രോഗ്രാമുകളിലുമെല്ലം ഞാൻ കളിച്ച് സമ്മാനങ്ങൾ വാരി കൂട്ടി അത് കഴിഞ്ഞപ്പോൾ സ്കൂളിൽ സ്കൂൾ പ്രോഗ്രാമിനും എന്നെ എനിക്ക് കളിക്കാനുള്ള അവസരങ്ങൾ കിട്ടി അങ്ങനെ കളിച്ച് കളിച്ച് എന്നെ ഓരോ ഫങ്ക്ഷനിലും ആൾക്കാരെന്നെ നൃത്തം കളിക്കാൻ വിളിക്കുമായിരുന്നു അങ്ങനെ വിളിച്ച് അവസാനം നൃത്തം എനിക്കൊരു പാഷനായി മാറി അങ്ങനെ അവസാനം ഞാന് നൃത്തത്തിലേക്ക് മാത്രമായി എൻ്റെ എൻ്റെ ശ്രദ്ധ തിരിച്ചു നൃത്തത്തിൽ നൃത്തത്തിൽ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ വാരികൊയ്യാൻ വാരി കൊയ്യാൻ പറ്റി ഇതിൽ നൃത്തത്തിൽ നൃത്തത്തിൽ ഒരുപാട് ട്രോഫികളെനിക്ക് കിട്ടുകയും ഒരുപാ ഒരുപാട് സ്ഥാനമാനങ്ങൾ ഒരുപാട് ആദരവുകളും കിട്ടികൊ കിട്ടിയിട്ടുണ്ടായിരുന്നു നൃത്തം എൻ്റെ ഒരു വലിയൊരു പാഷനായിരുന്നു എൻ്റെ എൻ്റെ നൃത്തത്തിൽ എൻ്റെ കുടുംബക്കാർക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകാൻ നല്ലൊരു സന്തോഷമായിരുന്നു നൃത്തത്തിൽ ഒന്നാമനായിട്ട് വന്ന് ഞാൻ നൃത്തം നൃത്തനത്തിൻ്റെ പാഷനാക്കി നൃത്തത്തിനെ എൻ്റെ പാഷനാക്കി നൃത്തം മാത്രമായി പഠിക്കാൻ തുടങ്ങി അത് എ കോളേജിൽ കോളേജുകളിൽ കോളേജിലും സ്കൂൾ ഇതിലും നൃത്തം തുടങ്ങി നൃത്തം പഠിച്ച് ഇപ്പോൾ നൃത്തത്തിൻ്റെ ഒരു ക്ലാസ് ഒര് ഒരു അക്കാദമിക് ഒര് ഒര് ഇൻസ്റ്റിട്യൂഷൻ തന്നെ ഞാൻ തുടങ്ങി ഒര് നൃത്തം നൃത്തത്തിൽ നൃത്തം പഠിപ്പിക്കാൻ എൻ്റെ കീഴിൽ രണ്ട് ടീച്ചറിനെയും ഞാൻ വച്ചു ഇപ്പോൾ എൻ്റെ നൃത്ത ക്ലാസ്സിൽ നൂറോളം കുട്ടികൾ നൃത്തം പഠിക്കുന്നുണ്ട് അത് നല്ല ടീച്ചേർസ് മൂന്ന് രണ്ട് ജെൻറ്റും ആറ് ലേഡീസും നൃത്തം പഠിപ്പിക്കാൻ ഉണ്ട് കുട്ടികളെ നല്ല രീതിയിൽ നൃത്തം പഠിപ്പിക്കുകയും അവരെ എന്നെ പോലെ ഒരു പ്രബൽ പ്രബലരാക്കുകയും ചെയ്യാൻ ഞാനാഗ്രഹിക്കുന്നു നൃത്തം നൃത്തം ഒര് ക കലയാണെന്നും ആ കലയെ പ്രോത്സാഹിപ്പിക്കൽ എൻ്റെ കടമയാണെന്നും എനിക്ക് തോന്നിയതില് ഞാൻ നൃത്തത്തെ ഒരു പാഷനാക്കി എല്ലാ കുട്ടികളിലേക്കും അത് പങ്ക് വച്ച് കൊടുക്കുകയും ചെയ്യുന്നു ഞാൻ നൃത്തം പഠിപ്പിക്കുന്നത് പ കാശ് വാങ്ങാതെയാണ് അവർക്ക് ഫ്രീ ആയിട്ടാണ് എൻ്റെ കല മറ്റുള്ളവർക്ക് പങ്ക് വച്ച് കൊടുക്കുന്നത് ഇങ്ങനെയാണ് ഞാനാദ്യമായി നൃത്തത്തിലേക്ക് ചുവട് വച്ചത്